ഹലോ ആ ഓക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയ്ൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരികയാണ് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം

ഓക്കെ ഉം ഉം ഹോസ്പിറ്റൽസ്സ് എന്ന് പറയുമ്പം എന്താ ലൈക് പ്രേഗ്നെൻസി അതുപോലെ തന്നെ എന്തെങ്കിലും അ ഉം ഉം മ് മ് ഓക്കെ മ് ഉം ഉം ഓക്കെ അല്ല അപ്പം നിങ്ങൾക്ക് കോണ്ടാക്സ് ഒക്കെ എങ്ങനെയാ കിട്ടിയത്

ആ ആ അതെ ആ ആ ഉം ആ ആ ആ ആ ലൈക് കുറച്ചുംകൂടെ കാര്യങ്ങൾ ഡീറ്റെയ്ൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഉം ഉം ഓക്കെ

ഓ അഡ്മിറ്റ് ആയാൽ മാത്രം കിട്ടുകയുള്ളൂ അല്ലേ

അല്ല ഇപ്പം ഈ ഹോസ്പിറ്റാലിറ്റിക്ക് മാത്രം ഉള്ളോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എഡ്യുക്കേഷൻ അതിനോ അങ്ങനെ അതിനൊന്നും ഇല്ല ഉം ഉം ഉം ഉം ഓക്കെ

അ ഓക്കെ

ഉം മ് മ്

ആ ഓക്കെ ഉം

ആ അ ഓക്കെ

ആ ഓക്കെ പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്ന് ഡിസ്ക്കസ്സ് ചെയ്യണം ഡിസ്കസ് ചെയ്ത ശേഷം അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു റിപ്ലെ തരാം ഇല്ല ഡൗട്ട് ഇല്ല ഇപ്പോൾ ഓക്കെ ആയി കുഴപ്പം ഇല്ല എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാം ഓക്കെ ശരി